ഞാൻ ബൈക്കിൽ താണ്ടിയ ഏറ്റവും വലിയ വഴി എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അവിടെ ഉള്ള വഴിയാണ് കാരണം ഞങ്ങൾ നമ്മുടെ ഇവിടെ എന്ന് വെച്ചാൽ ടാറിട്ട റോഡും അല്ല കോൺക്രീറ്റ് റോഡൊന്നും അല്ല ജസ്റ്റൊരു മണ്ണുവഴിയാണ് അപ്പം ഈ വേനലാകു ഈ മഴക്കാലം ഒക്കെ ആകുമ്പം നമ്മുടെ ഇവിടെ ഫുള്ള് വെള്ളം ഒക്കെ വന്ന് വണ്ടി ഒന്നും ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം ആ മഴ ഇതൊക്കെ കഴിഞ്ഞ് വേനൽക്കാലം ആകുമ്പോൾ അതായത് ഈ കാലം ഒക്കെ ആകുമ്പോളേക്കും മണലെല്ലാം കൂടെ ഇതായി കഴിയുമ്പോൾ പിന്നെ അതിലെ വണ്ടി ഓടിക്കാൻ പറ്റില്ല വണ്ടി ഓടിച്ച് കഴിഞ്ഞാലും ഭയങ്കര വണ്ടി ഇങ്ങനെ വെട്ടിവെട്ടി കളിക്കും മീൻസ്സ് ഇങ്ങനെ ഒരു സൈഡിലേക്ക് അങ്ങോട്ട് പോകും പിന്നെ അങ്ങോട്ട് പിടിക്കും ഇങ്ങോട്ട് വരും അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ വണ്ടിയിൽനിന്ന് വീഴാൻ സാധ്യതയുണ്ട് പിന്നെ മഴക്കാലത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ വണ്ടിയിൽനിന്ന് സ്ലിപ്പ് ആവാനുള്ള സാധ്യത ഇതിപ്പം മെയിൻ റോട്ടിൽ ആണെങ്കിലും മഴക്കാലവും രണ്ടും ഒരേപോലെ നോക്കണം പിന്നെ വണ്ടി നമ്മൾ ഓടിക്കുന്നപോലെ ഇരിക്കും